ഇന്ത്യയില് സാധാരണയായിട്ട് മൂന്നുതരം ഗതാഗത മാര്ഗം ആണുള്ളത് അത് ഒന്ന് റോഡ് റോഡില് കൂടെ ബസ് കാർ എല്ലാ വാഹനവും പോകും പക്ഷെ കുണ്ടും കുഴിയും വെള്ളവും ആയതുകൊണ്ട് കുത്തി കുലുങ്ങി ഇങ്ങനെ പോകണം ബസ്സിൽ അത് സൂക്കേടുകാരെ കൊണ്ടുപോകാനും പറ്റില്ല ഗര്ഭിണികളെ കൊണ്ടുപോകാനും പറ്റില്ല ആശുപത്രിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് അവരൊക്കെ പ്രസവിക്കുകയും ചെയ്യും സൂക്കേട് കൂടും ചെയ്യും അങ്ങനെയാണ് റോഡിന്റെ നിലപാട് പിന്നെ ഇങ്ങ് ഇവിടെ അടുത്തൊന്നും ജലത്തില് കൂടി പോകുന്നതില്ല അത് കൊച്ചി പാലക്കാട് ആലുവ അവിടെയൊക്കെയാണുള്ളത് അവിടെയൊക്കെ പോയാൽ കപ്പലിൽ തോണിയിൽ എല്ലായിടത്തും കയറും ചെയ്യാം കാണും ചെയ്യാം ഞാൻ അതിലൊക്കെ പോയിട്ടുണ്ട് സുഖമാണ് വെള്ളത്തിൽ കൂടുള്ള യാത്ര കപ്പലിലൊക്കെ പോയിട്ടുണ്ട് കപ്പലിലും ബോട്ടിലും ബോട്ടിലും ഒക്കെ വരും ഒരു ദിവസം ഇരുന്നു പോയിട്ടുണ്ട് എല്ലാ സ്ഥലങ്ങളും വള്ളത്തിലിരുന്ന് അങ്ങനെ കണ്ട് നാലുമണിവരെ ഇരുന്നു ബോട്ടിൽ എന്നിട്ടവിടുന്ന് പോന്നു പിന്നെ ട്രെയിനാണ് ട്രെയിനിൽ പോകാനും നല്ല സുഖം ഒക്കെ തന്നെയാണ് അതിലാണ് എല്ലാ ഇതും ഉള്ളത് ബാത്റൂമും എല്ലാ ഇതും ഉണ്ട് ട്രെയിനിൽ അതേപോലെ വിമാനം ഫ്ലൈറ്റിൽ കയറാനും സുഖം തന്നെയാണ് വിമാനത്തിലും ഞാൻ പോയിട്ടുണ്ട് വിമാനത്തില് കയറിയാലും തീവണ്ടിയിൽ ഇരിക്കണമാതിരിയാണ് സിന് പോകാൻ ഞാന് ഡെല്ലി പോയി അവിടെ നിന്ന് കുറേ രാജ്യങ്ങളൊക്കെ കണ്ട് അവിടെ നിന്നൊക്കെ പോന്നു വിമാനത്തിൽ കയറാനും നല്ല സുഖം തന്നെയാണ്